കാർഷിക മേഖല നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണ് കാലാവസ്ഥ വ്യതിയാനങ്ങളും കീടങ്ങളുടെ ആക്രമണം തുടങ്ങിയവ

ഹൈ റേഞ്ചിലെ ഇടുക്കി ജില്ലയിലെ വിളകളെ വളരെ കാര്യമായിത്തന്നെ ബാധിക്കുന്നുണ്ട് ഇപ്പോഴിവിടെ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട വിളകള് തെങ്ങ് കവുങ്ങ് കുരുമുളക് ഏലം ജാതി ഗ്രാമ്പു അങ്ങനെ ഒരുപാട് സുഗന്ധവ്യഞ്ജനങ്ങളാണ് ഇ ടുക്കി ജില്ലയില് കൂടുതലായും മലയോര മേഖലകളില് കൃഷി ചെയ്യപ്പെടുക കാലാവസ്ഥാ വ്യതിയാനം വളരേ സ്വാധീനിക്കുന്ന കൃഷികളാണ് ഇവയെല്ലാം ഉദാഹരണമായി കുരുമുളകിൻ്റെ കാര്യംതന്നെ എടുത്തുകഴിഞ്ഞാല് കറക്റ്റ് സമയത്ത് നമ്മുടെ മൺസൂൺ മഴ കിട്ടാതിരിക്കുകയും കാലാവസ്ഥ വ്യതിയാനം സംഭവിക്കുകയും ചെയ്തു കഴിഞ്ഞാല് ആ കൃഷി ഇടവിളവിനെ വളരേ കൂടുതലായത് ബാധിക്കാറുണ്ട് പല വർഷങ്ങളിലും മഴ കൃത്യ സമയത്ത് വേനൽ മഴയുടെ ലഭ്യതക്കുറവും ചൂടു കൂടുന്നതുമൂലം കുരുമുളകിൻ്റെ വിളവിനെ അതു വളരെ കാര്യമായി അഫക്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ കീടങ്ങളുടെ ആക്രമണമെന്നു പറഞ്ഞാല് കുരുമുളകിനങ്ങനെ കീടനാശിനികളൊന്നുമടിക്കണ്ട സാഹചര്യങ്ങള് കുരുമുളകിനു വരുന്നില്ല മറ്റൊരു വിളയാണ് ഏലം തണുപ്പ് കൂടിയ മേഖലകളിൽ ഇടുക്കി ജില്ലയിലെ ഹൈ റേഞ്ച് മേഖലകളിലെല്ലാം കൃഷി ചെയ്യുന്ന വ്യാപകമായി ഇപ്പോൾ കൃഷി ചെയ്തപ്പെട്ടുവരുന്ന ഒരു വിളയാണ് ഏലം ഏലത്തെക്കുറിച്ചു പറയുകയാണെങ്കില് വളരെ അധികം കീടങ്ങള് ആക്രമിക്കുന്ന ഒരു കാർഷികോൽപ്പന്നമാണ് ഏലം ഏലത്തെ തണ്ടുതുരപ്പൻ പിന്നെ അങ്ങനെ ഒരുപാട് കീടങ്ങള് ഏലത്തെ ആക്രമിക്കുകയും അതിനെ തടയാനായിട്ട് കീടനാശിനികള് എല്ലാ മാസവും ഒന്നും രണ്ടും പ്രാവശ്യമൊക്കെ അടിച്ചുകൊടുക്കേണ്ട സാഹചര്യം വരുന്നുണ്ട് അതുകൊണ്ടുതന്നെ ഏലം കൃഷി ചെയ്യുന്ന കൃഷിക്കാര് പിന്നെ അതിന് കാലാവസ്ഥാ വ്യതിയാനമെന്നു പറയുമ്പോള് ചൂടു കൂടിയ മേഖലകളില് ഒരു രീതിയിലും കൃഷിചെയ്യാൻ പറ്റാത്തൊരു കാർഷികവിളയാണ് ഏലം ഏലം കൃഷി ചെയ്യുമ്പോള് ഹ്യുമിഡിറ്റി കൂടുകയും ചൂടു കൂടുകയുമൊക്കെ ചെയ്തുകഴിയുമ്പോള് ഏലം നശിച്ചു പോകാനുള്ള സാഹചര്യങ്ങളുണ്ടാവുന്നുണ്ട് കാലാവസ്ഥാ വ്യതിയാനം പണ്ട് വളരെ തണുപ്പായിരുന്നൊരു സ്ഥലമായിരുന്നു ഈ ഇടുക്കി ജില്ലയും ഹൈ റേഞ്ചുമൊക്കെ പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾകൊണ്ട് ഇവിടുത്തെ സ്വാഭാവിക കാലാവസ്ഥ നഷ്ടപ്പെടുകയും കാലാവസ്ഥാ വ്യതിയാനം ചൂടു കൂടുന്നതിനുമുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായപ്പോള് ഏലക്കൃഷിയെ വളരേ ഭീകരമായിത്തന്നെ കാലാവസ്ഥാ വ്യതിയാനം എഫെക്റ്റേയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കീടങ്ങളുടെ ആക്രമണം വളരെ ശക്തമായി ഏലത്തിന് ഏൽക്കാറുണ്ട് അതുകൊണ്ടുതന്നെ കൂടുതല് വിഷങ്ങളും വിളവുകളൊക്കെ അടിക്കേണ്ടതായിട്ടൊക്കെ വരുന്നുണ്ട് പിന്നെ തെങ്ങ് കവുങ്ങ് തുടങ്ങിയ വിളകളൊക്കെയും നശിച്ചു പോവാനായിട്ടുണ്ടായ ഒരു കാരണമെന്തെന്നു ചോദിച്ചുകഴിഞ്ഞാല് അതും കീടങ്ങളുടെ ആക്രമണം മൂലംതന്നെയാണ് ഫംഗസും ബാക്റ്റീരിയയൊക്കെ ബാധിക്കുന്നതുമൂലം അതിന്റെ കൂമ്പുകള് ചീഞ്ഞു പോവുകയും അതാ മരത്തെത്തന്നെ ബാധിക്കുകയും മരം മുഴുവനായിട്ടുണങ്ങിപ്പോകാനുള്ള സാഹചര്യങ്ങള് ഉണ്ടാകുന്നുണ്ട്

അതിനെയൊക്കെ നമ്മള് ഒരുപരിധിവരെ ചെറുത്തുനിര്ത്തുന്നുണ്ടെങ്കിലും ഈ തെങ്ങൊക്കെയൊരു വിളവെടുപ്പു കാലമാകണമെങ്കില് കുറേ വർഷങ്ങളെടുക്കും കുറേ വർഷങ്ങളുടെ പ്രയത്നം പത്തും ഇരുപതും വർഷംകൊണ്ട് നല്ല രീതിയില് നിന്നിരുന്ന ചെലവ് ചെറിയൊരശ്രദ്ധകൊണ്ടോ അല്ലെങ്കില് കാലാവസ്ഥാ വ്യതിയാനംകൊണ്ടോ ഇത് നശിച്ചു പോയിക്കഴിഞ്ഞാല് രണ്ടാമതൊരു വിളവാക്കി മാറ്റുക എന്നുള്ളത് വളർത്തി വലുതാക്കി ഒരു വരുമാന മാർഗ്ഗമാക്കി മാറ്റുക എന്നുള്ളതു വളരേ ബുദ്ധിമുട്ടേറിയ ടാസ്ക്കാണ് അതുകൊണ്ടുതന്നെ പലപ്പോഴും കൃഷിക്കാര് ഇതിൽനിന്നു പിന്തിരിഞ്ഞുപോകാനാണ് സാധ്യത

ഗ്രാമ്പു ജാതി തുടങ്ങിയ വിളകളെയും കാലാവസ്ഥാ വ്യതിയാനം ഭയങ്കരമായി ബാധിക്കുന്നുണ്ട് ചൂടു കൂടുന്നതും പല കീടങ്ങളുടെ ആക്രമണം മൂലവും ജാതിയ്ക്കായും ഗ്രാമ്പൂവുമൊക്കെ വളരെ ഭീകരമായ രീതിയില് നശിച്ചു പോകുന്നതിനുള്ള സാഹചര്യം കൂടുതലായിട്ടും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഈ കലാവസ്ഥാ വ്യതിയാനം അനുസരിച്ച് കൃഷി രീതികള് മാറ്റേണ്ട സാഹചര്യമാണ് പല മേഖലകളിലുമുണ്ടായിട്ടുള്ളത് പരമ്പരാഗതമായി ചെയ്തുവന്നുകൊണ്ടിരുന്ന പല കൃഷികളും കൃഷിക്കാര് ഉപേക്ഷിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് പുതിയ കൃഷി രീതികള് പഠിച്ചുവരുമ്പോഴേക്കും കൃഷിക്കാർക്കതിൻ്റെതായ ബുദ്ധിമുട്ടുകള് എപ്പോഴും ഉണ്ടായിട്ടുണ്ട് അതിനുള്ള പ്രാഥമിക പരിശീലനമോ കൂടുതല് അറിവോ ഇല്ലാത്തതുകൊണ്ടുതന്നെ പുതിയ കൃഷി രീതികള് പഠിച്ചുവരുമ്പോള് വളരെ ബുദ്ധിമുട്ടിത്തന്നെയാണ് കൃഷിക്കാര് കൃഷി ചെയ്യുന്നത് ഇവയൊക്കെയായിട്ട് ഒത്ത് എങ്കിലും ഇങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളുണ്ടെങ്കിലും കൃഷിക്കാര് വേറെ മാർഗ്ഗമില്ലാത്തതുകൊണ്ട് അതൊക്കെയായിട്ടൊത്തുപോയി പല പല അവരുടെ കൃഷി രീതികളില് മാറ്റങ്ങള് വരുത്തി കൃഷി ചെയ്യാനുള്ള മനസ്സ് കൃഷിക്കാര് കാണിക്കുന്നുണ്ട് കാരണം അവർക്കു വേറെ ജീവിത മാർഗ്ഗമില്ലാത്തതുകൊണ്ടുതന്നെ വേറെ ഒരോപ്ഷനില്ലാത്തതുകൊണ്ട് എങ്ങനെയും പിടിച്ചുനിൽക്കാനും ജീവിക്കാനും വേണ്ടി ഒരു വരുമാനവുണ്ടാക്കാൻ വേണ്ടി കാലാവസ്ഥാ വ്യതിയാനവും കീടങ്ങളുടെ ആക്രമണമൊക്കെ ഉണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിക്കാനും ഉള്ള ശ്രമം എപ്പോഴും കൃഷിക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട് അതുകൊണ്ടുതന്നെ കൃഷിയെ ഒരു നല്ല രീതിയിലേക്കു നമ്മള് കാണുകയും കുറച്ചുംകൂടി കൂടുതൽ പ്രാധാന്യം ഈ മേഖലയ്ക്കു കൊടുക്കുകയും ബോധവത്കരണം കൊടുക്കാനുള്ള പദ്ധതികളൊക്കെ ഗവൺമെന്റിൻ്റെ ഭാഗത്തുനിന്നും മറ്റ് ഏജൻസികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടതാണെന്നും ആണ് എൻ്റെ അഭിപ്രായം